ഇൻഡോർ കളികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ക്യാരംസ് ചെസ് മോണോപ്പൊളി ചീട്ട് കളി എന്നിവയൊക്കെയായിരുന്നു കോവിഡ് ലോക് ഡൗണിൻ്റെ സമയത്തു നേരംപോക്കിന് വളരെയധികം സഹായകരമായിരുന്നു ഈ മോണോപ്പൊളിയും ചീട്ടുകളിയുമെല്ലാം രാവിലെ ഭക്ഷണത്തിന് ശേഷം മോണോപ്പൊളി കളിക്കാനിരുന്നാൽ ഉച്ചയ്ക്ക് ഊണിന് എഴുന്നേല്ക്കും അതിനുശേഷവും തുടർന്നും കളിച് കളി തുടരുമായിരുന്നു ചീട്ട് കളിയും മോണോപ്പൊളിയും എല്ലാ ദിവസവും മാറിമാറി കളിക്കാറുണ്ടായിരുന്നു